എൻ്റെ നാട്ടിലുള്ള ഒരു ആരോഗ്യപരിരക്ഷ ഇപ്പം കേരളം തന്നെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ഒന്നാമത് ആയതുകൊണ്ടു തന്നെ ഇവിടെ അങ്ങനൊരു കുറവ് എനിക്ക് അനുഭവം തോന്നിട്ടില്ല എല്ലാം ഒ അതിൻ്റെതായൊരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊറോണ ടൈമിലായാലും ഇപ്പം വേണ്ട വാക്സിനേഷനും അങ്ങനെയെല്ലാം എൻ്റെ പ്രദേശത്ത് എനിക്ക് ലഭിച്ചിരുന്നു അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും എനിക്ക് ലഭിച്ചിരുന്നു പിന്നീട് സാധരണ ഒരു ഹെൽത്ത് സെൻ്ററിൽ പോവോങ്കിലോ ഡിസ്പെൻസറിൽ പോവുകയാണെങ്കിലും എനിക്ക് ആവിശ്യമുള്ള ചികിത്സ എനിക്ക് നല്ല രീതിയിൽ കിട്ടിട്ടുണ്ട് അതോണ്ട് തന്നെ എനിക്ക് അങ്ങനെ മറ്റുള്ളോർക്ക് അത് കിട്ടിട്ടുണ്ടോന്നല്ല എനിക്ക് അത് എല്ലാം വളരെ നല്ല രീതിയിൽ കിട്ടിട്ടുണ്ട് അതുകൊണ്ടു തന്നെ എനിക്ക് മറ്റു കുറ്റങ്ങൾ പറയാൻ പറ്റില്ല ഇപ്പം കിട്ടാത്തവരും പലരും ഉണ്ട് അത് അവിടത്തെ കാര്യങ്ങളായിരിക്കാം പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു വീഴ്ചകൾ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവാൻ സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടും ഇല്ല കാരണം അവിടെ ഇവിടത്തെ ഒരു പഠനവും ഇവിടുത്തെ ഒരു ഡോക്ടറും നേഴ്സും ഒക്കെ പറയുന്നത് പുറമേ രാജ്യങ്ങളിലും വളരെ അഗീകൃതമാണ് അതുകൊണ്ടു തന്നെ അങ്ങനെ ഒരു ആരോഗ്യമേഖല അതിൻ്റെതായൊരു ഒരു കൊടുമുടിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരു മാറ്റം പറയാൻ പറ്റില്ല അപ്പം എൻ്റെ പ്രദേശം എൻ്റെ പ്രദേശത്ത് എന്നു പറയുന്നത് ഒരു ഗ്രാമമാണ് പക്ഷേ ആ ഗ്രാമത്തിൽ തന്നെ ഹോസ്പിറ്റലുകൾ ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും ഹെൽത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു മഴക്കാലം ആണെങ്കിലും കൊതുക് വളരുന്നുണ്ടോ പിന്നെ രണ്ടു വയസായ പിള്ളേർക്കുള്ള പോളിയോ വാസിനേഷനും എല്ലാത്തിനും ഇഞ്ചക്ഷനും രണ്ടു വയസിന് കൊടുക്കണത് അഞ്ച് വയസിന് പത്തു വയസിന് പതിനഞ്ചു വയസ്സിൻറേം പിന്നെ റ്റി റ്റി വാക്സിനേഷനും എല്ലാം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടു തന്നെ നമുക്ക് അങ്ങനെ ഒരു കുറ്റം പറയാൻ പറ്റില്ല എല്ലാം അതിൻ്റെതായ ഒരു കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളെത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തും എന്നതിലാണ് അതിൻ്റെ കാര്യം എന്നുള്ളത് ഇപ്പോൾ ഞാനും ഞാൻ അഞ്ച് വയസിൻ്റെ ഞാൻ എടുത്തായിരുന്നു പത്തു വയസിൻ്റെ ഞാൻ എടുത്തായിരുന്നു അപ്പം അഞ്ചാമത്തെ വയസ്സിലും ഞാൻ എടുത്തിരുന്നു അതും സൗജന്യമായിട്ടാണ് ഞാൻ ചെയ്തത് അതു ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ് ഞാൻ ചെയ്തത് എനിക്ക് അവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നീട് ഇതേ വാക്സിനേഷൻ തന്നെ നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോവുകയാണെങ്കിൽ അവർ അത്രത്തോളം നമ്മുടെ കൈയ്യിൽ നിന്ന് വാങ്ങും പക്ഷേ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോയപ്പോൾ എനിക്ക് അത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ചികിത്സയാണ് കിട്ടിട്ടുള്ളത് അതുകൊണ്ടു തന്നെ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ആരോഗ്യപരിരക്ഷ മേഖല വളരെ മെച്ചപ്പെട്ടത് തന്നെയാണ്